ഹലോ നമസ്കാരം ഞാൻ കോഴിക്കോട് ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് സംസാരിക്കുന്നത് താങ്കൾ കോഴിക്കോട് ട്രാവൽസിലേക്ക് വിളിച്ചതല്ലേ താങ്കൾ യാത്ര ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ കാ സാർ എത്ര ദിവസം ഉണ്ടാകും ഇവിടെ ഈ ശനിയാഴ്ച അല്ലേ സാറ് ഫാമിലി ആയിട്ട് ആയിരിക്കുമോ സാർ ഒറ്റയ്ക്ക് ആയിരിക്കുമോ ഓ ഫ്രണ്ട്സ് ആയിട്ട് വന്നതാണല്ലേ ശരി സാർ നമ്മുടെ കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് സാറിന് ഒരു വൺ വീക്കിലത്തെ ഫുൾ പാക്കേജ് ഇവിടെ അവൈലബിളാണ് ഇതിൽ കോഴിക്കോട് വരുമ്പത്തേക്കും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ബീച്ച് റോഡ് അതുപോലെ തന്നെ മിഷ്കൽ പള്ളി തൊട്ടുള്ള ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് വേണമെങ്കിൽ കോഴിക്കോടിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ട്രാവൽ പോകാവുന്നതാണ് ഇതിന് നമ്മൾ പ്രൈസ് വരുന്നത്

ഓക്കെ രണ്ട് ദിവസത്തേക്ക് മതി അങ്ങനെയാണെങ്കിൽ സാറിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് അതിൽ വിത്ത് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ആയിരിക്കും സാറിന് സാറിൻ്റെ ഫ്രണ്ട് എത്ര ഫ്രണ്ട്സുണ്ട് സാർ ഓക്കെ നാല് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന സ്ഥലങ്ങൾ ബീച്ച് റോഡ് അതുപോലെ തന്നെ മിഷ്കൽ പള്ളി അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പി ടി ഉഷ റോഡ് പിന്നെ കോഴിക്കോടുള്ള ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ പാരഗൺ ഫുഡ് സ്പോട്ട് അതുപോലെ തന്നെ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട ഹൈ ഹൈലൈറ്റ് മാളുകള് ലുലു മാൾ ഇതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ വിത്ത് ട്രാവൽ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഈ പാക്കേജിൽ നമ്മൾ ഉൾക്കൊളിക്കുന്നതാണ് സാറിന് താല്പര്യം ഉണ്ടോ

സാറ് രണ്ട് ദിവസം ഫുള്ള് ഫ്രീ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ സ സാർ ഒരു അഞ്ഞൂറ് രൂപയുടെ സ്പെഷ്യൽ എക്സ്ട്രാ പാക്കേജ് എടുക്കുകയാണെങ്കിൽ സാറിന് ഒരു ഫ്രീ മെന്റർ ഒരു ട്രാവൽ ഗൈഡ് കൂടി സാറിൻ്റ ഒപ്പം നമ്മൾ അവൈലബിൾ ആക്കി തരും സാർ ആഗ്രഹിക്കുന്നുണ്ടോ ഓ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ ഒരുപാടുണ്ട് സർ കോഴിക്കോട് ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ മിശ്ക്കാൽ പള്ളി പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബീച്ച് റോഡ് അ മിഠായി തെരുവുകൾ ഒക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളാണ് പ്രധാനപ്പെട്ട അങ്ങനെ ആണെങ്കിൽ സാർ എൻ്റെ നേരിട്ട് ഓഫീസിലേക്ക് രണ്ടായി ആയിരത്തി അഞ്ഞൂറാണ് നമ്മുടെ ചാർജ് വരുന്നത് സാർ നേരിട്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ വിിച്ചത വിവരമായിട്ടുള്ള വി വിഷയങ്ങള് നമുക്ക് സംസാരിക്കാം സാറിന് ഞാൻ വാട്സആപ്പിൽ എൻ്റെ ലൊക്കേഷൻ അയക്കാം ഓഫീസിൻ്റെ ശരി സാർ വിളിച്ചതിന് നന്ദി താങ്ക്യൂ